മത്സ്യബന്ധനത്തിന് ഫിഷിംഗ് ബോട്ടുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഈ ബോട്ടുകളിലാണെങ്കിൽ ഈ എഞ്ചിൻ പെട്രോൾ എഞ്ചിനൊക്കെ ഉപയോഗിച്ചു ഓടുന്ന ഒരു ബോട്ടുകളാണ് ഫിഷിങ്ങ് ബോട്ടുകളാണ് ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത് അതാണ് നമ്മൾ യാത്രാ ബോട്ട് അതുപോലെ യാത്രാ ബോട്ടും ഫിഷ്ബോട്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അത് യാത്ര ബോട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ സീറ്റുകളും ആൾക്കാർക്ക് ഇരിക്കാൻ ന്ന രീതിയിലുള്ള സംവിധാനങ്ങളും അതിൻ്റെ അങ്ങനെയുള്ള സംവിധാനങ്ങളോട് കൂടി ചെയ്തേക്കുന്നതാണ് പക്ഷെ പ്രശ്നമെന്തെന്നു പറഞ്ഞാൽ മീൻ കിട്ടുമ്പോൾ അതിന് സംഭരിക്കാൻ അതിനെ എടുത്തു വിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള രീതിയിൽ നമ്മൾ മീൻ പിടുത്തത്തിനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫിഷിംഗ് ബോട്ടെന്നു പറയുമ്പോൾ അത് ആ ഒരു രീതിയിലുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യാത്ര ബോട്ട് വേറെ രീതിയിലും ഫിഷിങ്ങ് ബോട്ട് വേറെ ൻ്റെ രൂപത്തിലും പാകത്തിലൊക്കെ നല്ല വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ ഫിഷിങ്ങ് ബോട്ടാണ് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്